ബൈക്കിങ് ലോകത്തെ ട്രെൻഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എല്ലാരും ഓഫ്റോഡ് അതായത് നമുക്കിപ്പം ഓഫ്റോഡ് കേപ്പബിലിറ്റി ആയിട്ടുള്ള ഒത്തിരി വാഹനങ്ങൾ മിക്ക കമ്പനികളുടെയും വന്നിട്ടുണ്ട് പണ്ടെന്നു പറഞ്ഞു കഴിഞ്ഞാൽ റോഡ് ട്രിപ്പ് അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും ബൈക്കിൽ പോവുക സാധനം മേടിക്കാൻ പോവുക ഇതൊക്കെയായിരുന്നു എന്ന് പണ്ട് ടു വീലറിൽ ഉള്ള യാത്രയെന്ന് പറയുന്നത് ഇപ്പോഴത്തെ പിള്ളേരുടെ ട്രെൻഡ് എന്ന് പറയുന്നത് ഓഫ്റോഡിങ് ആണ് മെയിൻ ആയിട്ടും ട്രാവലിംഗ് ആണ് അവർ സമയം കിട്ടുമ്പോഴെല്ലാം ലോങ്ങ് പോവാനോ അല്ലെങ്കിൽ പുതിയ പുതിയ സ്ഥലങ്ങൾ കണ്ടുപിടിക്കാൻ കൂട്ടുകാരുമായിട്ട് കറങ്ങി നടക്കാൻ ആണ് സമയം ചിലവഴിക്കുന്നത് ഇപ്പോഴത്തെ ഓഫ്റോഡ് വണ്ടികളുടെ കേപ്പബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കേപ്പബിലിറ്റി ആണ് അതായത് നമുക്ക് ഏത് കുണ്ടും കുഴിയും റോഡില്ലാത്തതും ചെളിയാണെന്നു പറഞ്ഞാലും അതുകൊണ്ട് ട്രെക്കിങ്ങ് പോലെയുള്ള ജീപ്പുകൾ ഓഫ്റോഡ് അടിക്കുന്ന സ്ഥലങ്ങളിൽക്കൂടെ നമുക്ക് ഈ വാഹനം കയറ്റിക്കൊണ്ട് പോകാൻ പറ്റുന്നതുകൊണ്ട് ഇപ്പോഴത്തെ പിള്ളേരുടെ ട്രെൻഡ് എന്ന് പറയുന്നത് തന്നെ ഓഫ്റോഡിങ് ആണ് റൂട്ടുകളെന്ന് പറഞ്ഞാൽ ട്രക്കിങ് കാര്യങ്ങളൊക്കെ നടത്തുന്ന പല ജില്ലകളിലുള്ള കേരളത്തിലെ ബാംഗ്ലൂർ പല സ്ഥലങ്ങൾ തമിഴ്നാട് ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് അതുകൊണ്ട് ഇങ്ങനെത്തെ കേപ്പബിൾ വാഹനങ്ങൾ വന്നേക്കുന്നതുകൊണ്ട് ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളും കവർ ചെയ്യാനായിട്ട് സാധിക്കും അധികം എക്സ്പ്ലോർ ചെയ്യാനായിട്ട് സാധിക്കും അതുകൊണ്ട് എല്ലാവരും ഇപ്പോൾ ഓഫ്റോഡ് കേപ്പബിൾ വാഹനങ്ങളിലേക്കാണ് പുതിയ ട്രെൻഡ് വന്നിരിക്കുന്നത് അതുപോലെതന്നെ ചിലരുണ്ട് റോഡ് റോഡിൽക്കൂടെ റോഡ് ആയിട്ടുള്ള വാഹനങ്ങൾ സെറ്റ് ചെയ്യുന്നവരുമുണ്ട് ചിലർക്ക് പിന്നെ ലക്ഷദ്വീപ് അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ദൂരോട്ട് ട്രാവൽ ചെയ്യുന്നവരായിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ ചിലർ വാഹനം കയറ്റി അയക്കുന്ന കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി വേറെ വേറെ രാജ്യത്ത് ഓടിക്കുന്നവരുണ്ട് അതല്ലാതെ ഹിമാചൽ പ്രദേശ് കാശ്മീർ പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്നവരുണ്ട് ചില കാറ്റഗറി ആൾക്കാർ ഓഫ്റോഡിങ്ങിലോട്ടാണിപ്പോൾ മെയിൻ ആയിട്ടും എനിക്ക് തോന്നുന്നു ഒരുമാതിരിപ്പെട്ട ഒരു അറുപത് ശതമാനത്തിനു മേളിൽ ഇപ്പോഴത്തെ യങ് ജനറേഷൻ പിള്ളേർ ഓഫ്റോഡിങ്ങിലേക്കാണ് തിരിഞ്ഞിരിക്കുന്നത് അതായത് ആ വാഹനത്തിൽ വാഹനമായിട്ട് നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളും കവർ ചെയ്യാനും കാണാനും ആസ്വദിക്കാനും പറ്റും